എൻ്റെ സെക്കന്റ് പ്രോഡക്റ്റ് ഏതാന്ന് വച്ചിട്ടുണ്ടെങ്കിലൊരു ഹെയർ ഓയിൽ ആണ് അപ്പം ഹെയർ ഓയിലിൻ്റെ പേര് ഏതെന്ന് വച്ചിട്ടുണ്ടെങ്കില് അമ്മിണിയമ്മാന്ന് പറഞ്ഞിട്ടൊരു ഹെയർ ഓയിൽ ആണ് ഇപ്പ ഞാൻ ഇൻസ്റ്റാഗ്രാം കണ്ടിട്ടാണ് ജസ്റ്റ് മേടിച്ചത് ഒരു ഒരു ഒരു മാസത്തോളം ഞാൻ യൂസ് ചെയ്തു ആദ്യോക്കേന്ന് വച്ചിട്ടുണ്ടെ നമുക്ക് അതായത് എൻ്റെ പഴയ മുടിൻ്റെ ഒരവസ്ത തന്നെയായിരുന്നു ചെറുതായിട്ട് മുടി കൊഴിയുന്നുണ്ടായിരുന്നു ആ ഒരു അവസ്ഥേലാണ് ഞാന് കൂടുതലായിട്ടും കൊഴിയണ്ടല്ലോ അപ്പ താരനത്യാവശ്യം നല്ലോണം ഉണ്ടായിരുന്നു പിന്നെ നല്ലോണം കൊഴിയാൻ തൊടങ്ങുന്നുള്ളോരവസ്ഥേലായപ്പോ ഞാന് ജസ്റ്റൊന്ന് ഞാനത് മേടിച്ചുന്നേ ഉള്ളു അപ്പം പിന്നെ എനിക്കത് അതായത് പിന്നെ അങ്ങനെ അങ്ങനെയാണ് ഞാന് ഓ ഓ ഇത് മേടിച്ചത് അപ്പം നമുക്കെന്തെങ്കിലും ഒരു മാറ്റം മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടാവട്ടെ എല്ലാവരും കുറെ പേര് നല്ല റിവ്യൂ പറയുന്നൊണ്ട് അപ്പം എനിക്കെന്ന് വച്ചിട്ടുണ്ടെങ്കില് ഇപ്പോൾ കൊ കുറച്ച് ഒരു പത്ത് ദിവസമൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എൻ്റെ സാധാ പോലത്തെ മുടിയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇത് പിടിച്ച് വരാനുള്ള ടൈം വേണമല്ലോ അപ്പം അതുകൊണ്ടായിരിക്കുന്ന് പറഞ്ഞിട്ട് ഞാനെന്ത് ചെയ്തു അങ്ങനേരു മൈന്റിലെടുത്തു അപ്പം പിന്നേന്ന് വച്ചിട്ടുണ്ടെങ്കില് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് യൂസ് അതായത് പിന്നെ പിന്നെ പത്ത് പതിനഞ്ച് ദിവസമൊക്കെ ആകുമ്പോളേക്കും മുടി വല്ലാണ്ട് കൊഴിയാൻ തുടങ്ങി അപ്പം എനിക്ക് ഭയങ്കര ടെൻഷൻ ആയി അയ്യോ എനിക്ക് എന്താക്കും മുടി വല്ലാണ്ട് കൊഴിയുന്നുണ്ടല്ലോ എന്നുള്ളൊരു ടെൻഷൻ ആയി അപ്പം അതെനിക്ക് എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് തന്നാണ് ചിലപ്പം എല്ലാവരുടേം സ്കിൻ ഒരു പോലുള്ള മുടിന്റേം അതായത് ഇപ്പോൾ ഹോർമോൺ ചേഞ്ചെല്ലാം ഒരേ പോലെ അല്ലല്ലോ അപ്പം അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടായിരിക്കും എനിക്ക് പൊഴിയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു